ഹലോ പറഞ്ഞോ ആ അതെ അതെ അതെ പറഞ്ഞോ ആ ഓക്കെ ഓക്കെ അതിൻ്റെ പ്ലാനിംഗിൽ അപ്പോൾ കുറച്ച് കറക്ഷൻ വരുത്തേണ്ടി വരും റൂമ് ഹാള് ഇപ്പോൾ ഹോള് ഓൾറെഡി വലുതായിട്ടുണ്ട് അതിൽ നിന്ന് ആ ഹോളുന്നന്നെ വേറെ റൂമ് എടുക്കേണ്ടി വരും അപ്പോൾ ഹോൾ ചെറുതാവും അത് പ്രശ്നം പ്രശ്നം ഇല്ല അങ്ങനെ പ്രശ്നം ഇല്ല ഐറ്റംസ് ഇതന്നെ ഇപ്പോൾ എക്സ്ട്രാ ഇത് കിട്ടുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സ്റ്റോൺ പിന്നെ സിമൻറ്റ് കുയ്യാട്ട അങ്ങനത്തെ എക്സ്ട്രാ വേണ്ടി വരും പിന്നെ ഈന് എക്സ്ട്രാ കോസ്റ്റും വരും ഒരു ആ

അല്ല ചെറിയ റൂമ് വരുന്നെങ്കും വലിയ റൂമ് വരുന്നെങ്കും ഇപ്പോൾ ഒരു അളവുണ്ട് നമ്മൾ കല്ല് കെട്ടുന്നതിൻ്റെ അപ്പോൾ എന്തെങ്കും ഹൈറ്റിൽ കെട്ടുമ്പക്കല്ലേ ഏതായാലും അതെ കോസ്റ്റ് വരും ചെറുതായെങ്കും വലുതായെങ്കും പിന്നെ കോസ്റ്റ് നല്ലോണം വരുന്നത് ഇപ്പോൾ തേപ്പാക്കുമ്പക്കാണ് കോസ്റ്റ് നല്ലോണം വരുന്നത് ഇതെല്ലം റൂമ് വലുതാവുമ്പക്ക് അതിന് സ്ക്വയർ ഫീറ്റിനനുസരിച്ചിട്ട് ഇത് വലുതാവും റൂം വലുതാവല്ലോ ആ ഫസ്റ്റ് പ്ലാനിംഗ് ചേഞ്ചാക്കണം ഒരു എൻജിനീയറിൻ്റെ പോയിറ്റ് എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിക്കാം ഫസ്റ്റ് പ്ലാനിൻ്റെ ഹോളുന്ന് നേരെ ചെറുതായിട്ട് റൂമായിട്ട് ഞാൻ നിങ്ങൾക്ക് ഫസ്റ്റ് ഷെയറാക്കി തരാം പ്ലാന് നിങ്ങൾക്ക് ഓക്കെയാണെങ്കിൽ ഓക്കെ ഞാൻ ഇതാക്കാം

ഓ കോസ്റ്റത് അത് ചെറിയ റൂമ് എടുക്കുന്നെങ്കും വലിയ റൂമ് എടുക്കുന്നെങ്കും കോസ്റ്റ് അങ്ങനെ വരുന്നു അത്ര വരുന്നു